വർഷങ്ങൾ കൊണ്ട് ഇന്ത്യൻ വിനോദ വ്യവസായം ഒരുപാട് വികാസം പ്രാപിച്ചിട്ടുണ്ട് പ്രത്യേകം പ്രത്യേകമായിട്ടും നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് ഒരു പ്രത്യേകതയുള്ളത് ഒട്ടനവധി ഏറ്റവും കൂടുതൽ ഭാഷയിൽ ഓരോ സിനിമ ഇറങ്ങുന്നതായാലും ഓരോ വിനോദ കാര്യങ്ങളായിട്ട് വിനോ ടി വിയിൽ കാണുന്ന തരത്തിൽ വിനോദ കാര്യം പ്രവർത്തനങ്ങൾ പരിപാടികളായിട്ടും ഇറക്കുന്നത് ഇന്ത്യയിലാണ് അതുകൊണ്ടുതന്നെ ഈ ഇത് ഇതിൻറെ ഒരു മാർക്കറ്റിങ്ങ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇപ്പോഴാണ് മ ഈ സമയത്താണ് നമ്മുടെ ഇന്ത്യക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഈ നമ്മുടെ ഇന്ത്യൻ വിനോദ വ്യവസായം ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ഒരു സമയമാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും ജനപ്രിയമായ ചില വിനോദരൂപങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും സിനിമകളാണ് മൂവീസ് ആണ് സിനിമകളാണ് ഇപ്പോൾ ഈ സിനിമകൾ ഇപ്പോൾ നമ്മുടെ ഹോളിവുഡ് നിലവാരത്തിലേക്ക് തന്നെ നമ്മുടെ സിനിമകളെല്ലാം തന്നെ മിക്ക സിനിമകളും മാറുന്നതായി നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ രാജ്യത്തിലെ പൊതുവായി ഏറ്റവും കൂടുതൽ ആൾക്കാർ വിനോദത്തിൽ ഏർപ്പെടുന്നതും ഈ സിനിമ കാണുന്നതിലൂടെ തന്നെയാണ് അതുകൂടാതെ ഗെയിംസ് ഗെയിംസിനോട് താൽപ്പര്യമുള്ള ഒരുപാട് ജനത നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട് ക്രിക്കറ്റിൻ്റെ ഒരു കോട്ട തന്നെയാണ് നമ്മുടെ ഇന്ത്യ ക്രിക്കറ്റ് ഏറ്റവും പ്രിയ പ്രിയത്തോട് കൂടിയും താൽപ്പര്യത്തോടും കാണുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ